എൻ്റെ നാട്ടിൽ ഭയങ്കരമായിട്ട് വർദ്ധിച്ചു വരുന്ന ഒരു പ്രശ്നമാണ് പ്രമേഹം ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ ഭൂരിഭാഗം ആളുകൾക്കും ഇപ്പോൾ പ്രമേഹമുണ്ട് ഏതു വീട്ടിൽ ചെന്നാലും ആരു വന്നാൽ ഇപ്പോൾ അവർക്ക് ചായ അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളം കൊടുക്കുന്നതിനു മുന്നേ ഷുഗറുണ്ടോയെന്നു ചോദിക്കുന്നത് പതിവായിത്തീർന്നു അതുപോലെ അത്രയധികം ഈ പ്രമേഹം എൻ്റെ നാട്ടിൽ വർദ്ധിച്ചു വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പണ്ടത്തെ ആൾക്കാരെയൊക്ക വെച്ചു നോക്കുമ്പം ഇത്ര അധികം ഈ പ്രമേഹ രോഗം ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അന്നത്തെ ആളുകൾ കൂടുതൽ ഹെൽത്തിയായിരുന്നു അവരുടെ ഭക്ഷണ ക്രമത്തിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിരുന്നു അതുകൊണ്ടു തന്നെ അവർക്ക് ഈ പ്രമേഹമെന്നു പറയുന്ന രോഗം വളരെ കുറവായിരുന്നുതാനും എന്നാൽ ഇന്ന് അങ്ങനെയല്ല എല്ലാ നമ്മുടെ ഫുഡ് ഫുഡ് കഴിക്കുന്നതിൻ്റെ പ്രത്യേകതകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണ രീതിയിലുള്ള വ്യത്യാസം കൊണ്ടായിരിക്കും ഇത്ര അധികമായിട്ട് പ്രമേഹ രോഗം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇനി നമ്മുടെ പ്രമേഹത്തെ നേരിടാൻ വേണ്ടി ഈ ഗ്രാമത്തിൽ അല്ല കുറേയധികം ഒരുപാട് നാട്ടു വൈദ്യങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിലൊരു കാര്യമാണ് ചക്ക കഴിക്കുന്നതുകൊണ്ട് ഫാറ്റി ലിവറ് കുറയും കൊളസ്ട്രോള് കുറയും അങ്ങനെ ഷുഗറ് ഷുഗറിലുമൊക്കെ ഒരുപാട് വ്യത്യാസം ഉണ്ടെന്നു തോന്നി പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് പണ്ടത്തെ ആൾക്കാർ ചക്ക മാങ്ങ ചേമ്പ് ചേന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ കഴിച്ചുകൊണ്ടിരുന്നത് ഇതുപോലത്തെ ഇന്ന് നമുക്ക് കിട്ടുന്നത് ആയിട്ടുള്ള ഫാസ്റ്റ് ഫുഡൊക്കെ അന്നത്തെ മനുഷ്യർ കഴിച്ചുകൊണ്ടിരുന്നില്ല അപ്പം ഈ നാട് നാടൻ നാടൻ ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ഈ രോഗം രോഗം രോഗം കുറവായിരുന്നു അപ്പോൾ ഈ പ്രമേഹരോഗത്തെ എന്നാ കുറയ്ക്കാനായിട്ട് ഇങ്ങനെ ചക്കയൊക്ക നന്നായിട്ട് കഴിക്കുന്നതും ചക്ക കഴിക്കുമ്പോൾ ഷുഗറിപ്പോൾ കൂടുന്നതായിട്ട് പറയുന്നുണ്ട് പച്ചക്കപ്പ കഴിക്കുമ്പോഴും കൂടുന്നതായിട്ട് പറയുന്നുണ്ട് എന്നാലും ഈ ഇന്ന് ഫാസ്റ്റ് ഫുഡൊക്കെ കുറച്ച് കഴിയുമ്പം പിന്നെ ഈ നമ്മൾ മേടിക്കുന്ന പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കുമ്പം ആ ഒരുപാട് ഷുഗറ് രോഗത്തെ കണ്ട്രോള് ചെയ്യാൻ പറ്റുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ ഒരു കാര്യം കേട്ടിരിക്കുന്നത് ഈ ചിരട്ട കരി അത് ഉപയോഗിച്ച് ഉള്ള വെള്ളം ഉണ്ടാക്കുന്ന കാര്യമാണ് അതെങ്ങനെയാണെന്നു ചോദിച്ചാൽ എന്നാ വെള്ളം തിളപ്പിച്ച വെള്ളത്തിൽ നല്ല ചിരട്ടക്കരി ഉപയോയിച്ച് ശുദ്ധീകരിച്ച് അത് അരിച്ചെടുത്ത് ആ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ ഷുഗറ് കുറയുന്നതായിട്ട് ഒത്തിരി പേർ പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നൊരു കാര്യമാണ് തെങ്ങിൻ്റെ തന്നെ വേരുണ്ടല്ലോ തെങ്ങിൻ്റെ മണ്ണിനു മുകളിലായിട്ട് കുറേ വേരുകൾ തെങ്ങിൽ നിന്ന് പുറപ്പെടുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട് ആ തരത്തിലുള്ള വേര് ഇട്ട് വെള്ളം തിളപ്പിച്ച് തിളപ്പിച്ചാറി എന്താണ് പല സമയങ്ങളിൽ പല സമയത്ത് കുടിക്കുമ്പം ഷുഗറിനൊത്തിരി കുറവുണ്ടാവുന്നത് ആയിട്ടു കേട്ടിട്ടുണ്ട് നേരിട്ടുള്ള അറിവൊന്നും ഇല്ല അങ്ങനെ പരിശീലിച്ചു നോക്കിയിട്ടും ഇല്ല എന്നാലും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ എന്നാ തെങ്ങിൻ്റെ വേര് ഉപയോഗിച്ച് വെള്ളം തിളപ്പിച്ച് കുടിച്ചു കഴിയുമ്പോൾ ഷുഗറിന് കുറവുള്ളതായിട്ട് പിന്നെയൊരു കാര്യം ഉണ്ട് ഇൻസുലിൻ എന്നു പറയുന്നൊരു ചെടിയുണ്ടല്ലോ നല്ല കട്ടിയുള്ള തണ്ടും തിക്കായിട്ടുള്ള ഇലയൊക്കെ ഉണ്ടാകുന്ന ഒരു ചെടി ആ ചെടിയുടെ ഇല അതിൻ്റെ ഒരു പുളിപ്പുള്ള ഒരു ചെടിയാണത് ആ ചെടിയുടെ ഇലയ്ക്കൊരു പുളിപ്പുണ്ട് ചുമ്മാ കുട്ടികളൊക്ക പറിച്ചതിങ്ങനെ ചവച്ചരച്ചു തിന്നുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഈ ഈ ഇൻസുലിൻ എന്നു പറയുന്ന ഈ പുളിപ്പുള്ള ഈ ചെടിയുടെ ഇല എന്താണ് ഉപയോഗിച്ച് ചമ്മന്തി അരച്ചിട്ട് അത് ചോറിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ഷുഗറിന് ഭയങ്കര കുറവ് വരുന്നതായിട്ട് കേട്ടിട്ടുണ്ട് എൻ്റെ വലിയമ്മച്ചി അങ്ങനെ ഈ ഇൻസുലിൻ്റെ ഇൻസുലിൻ ചെടിയുടെ ഇല ഉപയോഗിച്ച് ചമ്മന്തി പതിവായിട്ട് അരയ്ക്കാറുണ്ട് ഷുഗറുണ്ടായിരുന്നു പക്ഷെ കൺട്രോൾഡ് ആയിരുന്നു ഒരു ഇൻസുലിനൊന്നും എടുക്കേണ്ടി വന്നിട്ടില്ല ഗുളികയും അതിനുവേണ്ടി കഴിക്കേണ്ടി വന്നിട്ടില്ല അപ്പോൾ ഈ ചെടിയുടെ ഇല ഉപയോഗിച്ച് ചമ്മന്തി അരച്ചു കഴിക്കുമ്പോൾ പ്രമേഹ രോഗത്തെ കുറേ അധികം കുറേയൊക്കെ കൺട്രോള് ചെയ്യാൻ പറ്റിയിട്ടുള്ളതായിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട് പിന്നെ ഒരു കാര്യം പറഞ്ഞു കേട്ടിട്ടുള്ളത് നമ്മുടെ ഫുഡ് കണ്ട്രോൾ ചെയ്യുകയെന്നുള്ളതാണ് എറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുപോലെതന്നെ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു ചെടികളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതും പ്രമേഹത്തെ നേരിടാൻ നമ്മുടെ നാട്ടിൽ പറ്റിയിട്ടുണ്ട് പിന്നെ ഒരു കാര്യമുള്ളതെന്നു പറയുന്നത് ഫ്രാഷൻ ബൂട്ടിൻ്റെ ഇല നമ്മൾ ഫുഡിന് ഫുഡിൻ്റെ കൂടത്തിൽ നമ്മൾ കഴിക്കുന്ന ഒരു ഫ്രൂട്ടായ ഫ്രാഷൻ ഫൂട്ടിൻ്റെ ഇല ഒത്തിരി ഉപയോഗിക്കാൻ പാടില്ല കൊളസ് എന്താണ് ഷുഗറ് കുറയുന്നതിനൊപ്പം തന്നെ പ്രഷറും അത് കുറയാൻ കാരണമാകും എന്നു കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഇല ഉപയോഗിച്ച് ഇട്ട് വെള്ളം തിളപ്പിച്ചാറി നമ്മുടെ ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിൽ കുടിക്കുമ്പോൾ ഈ പ്രമേഹം കുറയുന്നതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് നേരിട്ടുള്ള അറിവില്ലെങ്കിലും മറ്റു പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ എന്താണ് ഫ്രാഷൻ ബൂട്ടിൻ്റെ ഇല ഉപയോഗിച്ച് വെള്ളം തിളപ്പിച്ചാറി കുടിക്കുന്നത് എല്ലാം ഒരു ലിമിറ്റഡായിരിക്കണം അത് കൺഡ്രോ എന്നാ ശ്രദ്ധിച്ചു തന്നെ ഉപയോഗിക്കണം കാരണം അധികമായാൽ പ്രഷറ് കുറച്ച് പ്രഷറും ഷുഗറുമൊക്കെ കുറഞ്ഞാലും പ്രശ്നമാകും കാരണം അതൊക്കെ നമ്മൾ മോണിറ്ററ് ചെയ്തുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയും ചെയ്യണം പിന്നെയൊരു കാര്യങ്ങൾ ഉള്ളതെന്നു പറയുന്നത് ചിലവരൊക്കെ പെട്ടെന്ന് ഷുഗറിന് ടെസ്റ്റു ചെയ്യാൻ പോകുന്നതിനു മുന്നേ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യം പെട്ടെന്ന് കുറയാനായിട്ട് എന്താണ് പാവയ്ക്കയുടെ പാവയ്ക്ക ഇടിച്ചു ചതച്ച് അതിൻ്റെ വെള്ളം കുടിക്കാറുണ്ട് അത് അതു കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എന്താണ് പാവയ്ക്ക ഇങ്ങനെ ഇടിച്ചു ചതച്ചതിനെ നീര് കുടിച്ച് പെട്ടെന്ന് ഷുഗറ് കൺട്രോള് ചെയ്യും പക്ഷേ അങ്ങനെ പെട്ടെന്ന് കുറഞ്ഞാലും അത് സ്ഥായിയായിട്ട് ഈ പ്രമേഹരോഗത്തെ നേരിടാനായിട്ട് നമ്മുടെ നാട്ടിൽ പറ്റും എന്നു തോന്നണില്ല അങ്ങനെ ഉപയോഗിക്കുന്നെങ്കിലും വളരെ ഒരു ഒരു ഒരു റിസൾട്ടിനുവേണ്ടി മാത്രമാണങ്ങനെ പാവക്കയുടെ നീരു ഉപയോഗിച്ച് കൺട്രോള് ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ട് സ്ഥായി സ്ഥായി ആയിട്ടൊരു മാറ്റമോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ഈ പ്രമേഹത്തെ കൺട്രോള് ചെയ്യാനോ നമുക്ക് പറ്റും എന്ന് ഉറപ്പുപറയാൻ പറ്റത്തില്ല ഇതൊക്കെയാണ് ഈ ഷുഗറിനെ കൺട്രോള് ചെയ്യാൻ വേണ്ടി ഈ നാട്ടിൽ ഉപയോയിക്കുന്ന വൈദ്യങ്ങൾ എന്നൊക്ക പറയുന്നത് പിന്നെ നമ്മുടെ ഫുഡിൽ നന്നായി കുറേ ശ്രദ്ധിക്കുക ഫുഡിലെ എന്താണ് ഷുഗറ് കണ്ടൻ്റ് കൂടുതലുള്ള ഫുഡൊക്കെ വേണ്ടെന്നു വെക്കുക നാച്ചുറലായിട്ടുള്ള ഫുഡൊക്കെ എന്താ ഉപയോഗിക്കുന്നത് കൊണ്ടൊരിക്കലും നമുക്ക് പ്രമേഹമുണ്ടാവില്ല എന്നാൽ ഈ ഇന്ന് എന്താണ് ഫാസ്റ്റ് ഫുഡ് പോലെയുള്ള സിന്തതെറ്റിക്കായിട്ടുള്ള ഷുഗറൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് ഈ ഷുഗറുണ്ടാവുന്നതായിട്ട് കാണുന്നത് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഈ പ്രമേഹത്തെ നമുക്ക് നേരിടാൻ പറ്റും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഈ ചക്ക പണ്ട് കാരണവന്മാരൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരുന്നതുപോലെ ചക്ക കൂടുതലായിട്ട് ഉപയോഗിച്ചാൽ കൂടുതലായിട്ട് നമുക്ക് ഷുഗറിനെ കൺട്രോള് ചെയ്യാൻ പറ്റുമെന്നു തോന്നാറുണ്ട്